വ്യത്യസ്തരങ്ങളായ ഇൻഡോറ് ഔട്ട്ഡോറ് ഹാങ്ങിങ് പ്ലാൻസുകളൊക്കെയുണ്ട് കൂടുതലായിള്ളത് റോസ് ചെമ്പരത്തിണ്ട് ജാസ്മിൻ എക്സ് സോറ പിന്നെ ചെമ്പകം നമ്പ്യാർവട്ടം അഡിനിയം ശംഖുപുഷ്പോണ്ട് പെറ്റൂണിയ ബോഗൺവില്ല അരിപ്പൂ അതൊക്കെയുണ്ട് വീടിനുള്ളിൽ ഇൻഡോർ പ്ലാൻസുകള് ഒണ്ട് സ്മോൾ സ്നേക് പ്ലാൻറ് ഉണ്ട് സ്മോൾബാംബു ഉണ്ട് സ്പൈഡർപ്ലാൻറ് ഉണ്ട് കലാത്തിയ ഉണ്ട് മണിപ്ലാൻറ് ഉണ്ട് വീടിൻ്റെ എല്ലാ സൈഡിലും മണിപ്ലാൻറ്കളുണ്ട് അകത്തൂണ്ട് മണിപ്ലാൻറ് ഉണ്ട് ക്യാറ്റ്കസ് ഉണ്ട് ഹാങ്ങിങ് പ്ലാൻസ്ആയ ടെർട്ടിൽ വൈൻനുണ്ട് പിന്നെ ക്രീപേർസ് വള്ളിചെടികളില് കൂടുതലായിട്ടിള്ളത് ബോഗൺവില്ല പെറ്റൂണിയ പിന്നെ മണിപ്ലാന്റ് തന്നെ ശംഖുപുഷ്പം പിന്നെ സിപ്രസ് വൈനുണ്ട് അരിപ്പൂ അലമാണ്ട അങ്ങനെ എല്ലാ വ്യത്യസ്തരങ്ങളിലുള്ള ചെടികള് വീട്ടിലുണ്ട്